ഇപ്പം നമ്മുടെ ഒരു നമുക്കെല്ലാവർക്കും അറിയാം ഐഫോണിൻ്റെ ഒരു കാലമാണ് ഇപ്പം എന്നു വച്ചിട്ടുണ്ടെങ്കിൽ ഇ എം ഐ ഒക്കെ കിട്ടുന്നതുകൊണ്ട് ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും ഉള്ളൊരു സാധനമാണ് ഐഫോൺ അപ്പം എന്നു വച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ട് എല്ലാവരും അതാണ് കൂടുതൽ എടുക്കാൻ ശ്രമിക്കുന്നത് ഇപ്പം ഇ എം ഐ ഒക്കെ ഇട്ടിട്ട് എടുക്കാൻ അതായത് മെയിൻ ആയിട്ടുള്ള ഒരു ക്വാളിറ്റി എന്നു വച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്യാമറ കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാവരും എടുക്കുന്നത് പിന്നെയെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ ഉള്ള ഫോണെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ഞാൻ ഇപ്പോൾ അടുത്ത് എടുത്തതാണ് വിവൊ ട്വൻ്റി ട്വൻ്റി നയൻ ഇ എന്നു പറഞ്ഞിട്ടുള്ള ഒരു ഫോണാണ് എൻ്റെ അത്യാവശ്യം നല്ല ഫോണാണ് ക്യാമറയൊക്കെ അത്യാവശ്യം നല്ല ക്ലിയർ ആണ് എനിക്ക് മെയിൻ ആയിട്ട് ക്യാമറ നല്ലൊരു ക്യാമറയുള്ള ഫോൺ എടുക്കണം എന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലെടുത്തു മുപ്പതിനായിരം രൂപയായിരുന്നു എൻ്റെ കയ്യിൽ അങ്ങനെ ഒരു ആ ഒരു ബഡ്ജറ്റ് ഉണ്ടായിരുന്നുള്ളു അപ്പം എന്നു വച്ചിട്ടുണ്ടെങ്കിൽ ഇ എം ഐ ഇട്ട് എടുത്തതാണ് പക്ഷേ എനിക്ക് എൻ്റെ കയ്യിൽ ഉള്ള ഫോണിൽ ഞാൻ അത്യാവശ്യം തൃപ്തനാണ് നല്ല ലൈറ്റ് വെയിറ്റ് ആണ് അത്യാവശ്യം ക്യാമറ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് ഹാങ്ങ് കാര്യങ്ങളൊന്നുമില്ല അത്യാവശ്യം നല്ല ഫോണ് തന്നെയാണ്